ആ പിന്നെ കോഴിക്കോട് ജില്ലയിലേക്ക് ഞങ്ങൾ ഈ മാസം ഒരു ട്രിപ്പ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് ഏതാണ് ബ്രേക്ക്ഫാസ്റ്റിന് ആ അപ്പോൾ നിങ്ങൾ അതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ അത് മതി അതിനെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ട് പുറത്തൊക്കെ ആ ഞങ്ങളൊരു പത്തുപന്ത്രണ്ട് പേരുണ്ടാവും

ആ ബുക്ക് ചെയ്തോ ബ്രേക്ഫാസ്റ്റ് മാത്രം മതി ആ ആ ആ എപ്പോൾ ആയാലും പ്രശ്നമില്ല

ആ എ സി എടുത്തോ ആ ഉറപ്പായിട്ട് വരും